ഹലോ

അതേ എല്ലാ പൂക്കളുമുണ്ട് മുല്ല തെച്ചി ജമന്തി റോസ ചെണ്ടുമല്ലി ആണോ എന്നത്തേക്കാണ് ഓക്കേ ജമന്തിക്കൊക്കെ കുറഞ്ഞ വിലയൊക്കെയെ എടുക്കുന്നുള്ളൂ ഹോൾസെയിലായിട്ട് എടുക്കുകയാണെങ്കില് ഞാന് കുറച്ചാക്കി മിനിമമാക്കിത്തരാം കിലോയ്ക്ക് നൂറ്റിയമ്പത് വാടാർ മുല്ല നൂറ് നിങ്ങള് പൈസയെപറ്റി ബേജാറാകേണ്ട കാരണം ഇതിൻ്റെ മുന്നേ ഞാന് ഒരു ഈ കടയില് നില്ക്കാന് വേണ്ടി ഒരു ചെറുക്കനെ ആക്കി ഇപ്പോള് ആ ചെറുക്കൻ പടക്കപീടികയിലുള്ള ചെറുക്കനായിരുന്നു അപ്പോള് ഞാൻ കടയടച്ചു പോകുമ്പോള് ചെറുക്കനോട് ഞാന് പറഞ്ഞു രാവിലെ നീ തുറന്ന് എല്ലാം ചെയ്യണമെന്ന് ചെറുക്കൻ ഒരു പടക്കപ്പീടികയിലുള്ള ചെറുക്കൻ വന്നിട്ട് ഈ ഈ അങ്ങനെത്തന്നെ വെറുതെ കൊടുത്തു പിന്നെ പൂക്കളെല്ലാം മ്മ് ആ ഈ നമ്പറില് വിളിച്ച് പറഞ്ഞാല് മതി ആ പറയൂ

അ ഹ ഹ ആ പിന്നെ റോസ ആണോ ആ അ ആ അരളിയുണ്ട് ആ ആണോ കെട്ടിയതാണോ

ഓ രാവിലെ വിളിക്കുകയാണോ വരികയാണോ ആ അല്ല അങ്ങോട്ട് വരികയാണോ ഇങ്ങോട്ട് വരികയാണോ ഓക്കേ